കേരളത്തിലെ വ്യത്യസ്ത സമുദായങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ഇടയിലെ സമാധാനവും ധാരണയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് കലയുടെ കരഘോഷത്തിൻ്റെയും പങ്കെന്ന് പറഞ്ഞാൽ വലിയ ഒരു പങ്ക് തന്നെയാണ് ഒരു സംസ്കാരത്തിൽ നിന്ന് ഉറവയാകുന്ന ഒരു കലയെ ആസ്വദിക്കാനായിട്ട് നമ്മൾക്ക് അതിന് അ ഒരു ഭാഷയോ ഒരു സംസ്കാരമോ അറിഞ്ഞിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇപ്പോൾ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലുമൊക്കെ ചിത്രം കണ്ടു കഴിയുമ്പോൾ അത് ഏത് സമുദായക്കാരനാണെങ്കിലും അല്ലെങ്കിൽ ഏത് സംസ്കാരത്തിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിലും അ ചിത്രം മനസ്സിലാക്കിയെടുക്കാൻ അ ഭാഷയോ അങ്ങനെ ഒന്നുമില്ല ഏത് ഭാഷ അറിയുന്ന ആളാണെങ്കിലും ആ ചിത്രത്തിൽ നിന്ന് അതിൻ്റെ ആ ചിത്രം തരുന്ന ആശയത്തിനെ മനസ്സിലാക്കിയെടുക്കാൻ ഏത് സമുദായത്തിലോ ഏത് ഭാഷ അറിയുന്ന ആൾക്കോ എളുപ്പത്തിൽ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ ബലം പ്രയോഗിച്ച് ആളുകൾക്ക് എതിരെ ആളുകൾക്ക് ഇടയിൽ സമാധാനം കൊണ്ട് വരുന്നതിനേക്കാളും വളരെ ഭേദമായൊരു രീതിയാണ് കലയിലൂടെയും കരകൗശലത്തിലൂടെയും ആളുകൾക്ക് എതിരെ ഇടയിലൊരു സമാധാനം കൊണ്ട് വരുന്നത് അപ്പം ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണമെടുക്കാം സിനിമ ഒരു കലയാണ് അപ്പോൾ ഒരു സിനിമ കാണാനായിട്ട് എല്ലാ സമുദായത്തിൽ പെട്ട ആളുകളും അവരുടെ ജാതി മതവും ഒന്നും നോക്കാതെ ഒന്നിച്ച് വന്ന് ഒരു തിയേട്ടറിൽ എവിടെയാണെന്ന് വച്ചാൽ ഒരു സിനിമ കാണും അല്ലെങ്കിൽ ഒരു നാടകം ഇതിനൊന്നും ആരും അവരുടെ സമുദായമോ അങ്ങനെ ഒന്നും നോക്കുന്നില്ല എല്ലാവരും ഒന്നിച്ച് വന്ന് ഇരുന്ന് ഒരു പോലെ ആസ്വദിക്കുന്ന ഒന്നാണ് ഈ കലയും ഇതെല്ലാം അപ്പോൾ എല്ലാവരുടെയും ആശയം നമ്മുടെ ആശയങ്ങളും നമ്മുടെ ചിന്തകളുമെല്ലാം മറ്റുള്ളവരിലേക്ക് ഭാഷകളില്ലാതെ എത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വഴിയാണ് കല എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൂടെ നമുക്ക് ആളുകൾക്ക് എതിരെയോ ആളുകൾക്ക് ഇടയിൽ ഒരു സമാധാനം വളർത്തിയെടുക്കാൻ ഉള്ള വളരെ നല്ല ഒരു വഴിയാണ് ഇത്